അടുത്തുള്ള പട്ടണങ്ങളിലേക്ക് പോകുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കാരണം അടിസ്ഥാന സൗകാര്യങ്ങളുണ്ട് റോഡ് അനുദിനം വർദ്ധിക്കുന്നുണ്ട് സൗ അതിൻ്റെ വലിപ്പം വിസ്തീർണ്ണമൊക്കെ കൂട്ടുന്നൊണ്ട് അതുപോലെ തന്നെ വാഹനങ്ങളും ഇഷ്ട്ടം പോലെയുണ്ട് അതിലുപരി ഇപ്പം സാധാരണക്കാരിൽ പോലും എല്ലാ വീടുകളിലും വാഹനങ്ങളുണ്ട് എല്ലാവരും സ്വന്തം വാഹനങ്ങളിലാണിപ്പം യാത്ര പൊതു ഗതാഗതം പൊതുവെ ഒരു മന്ത ഗതിയിലായി മാറിയത് കൊണ്ട് തന്നെ അതുകൊണ്ടത്ര വലിയ ബുദ്ധിമുട്ട് ഒന്ന് അഭിമുഖീകരിക്കണില്ല എന്നാണ് എനിക്ക് തോന്നാറുണ്ട് പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വൈകിട്ട് ഒരു എട്ട് മണി കഴിഞ്ഞാൽ പിന്നെ ഈ പട്ടണങ്ങളിലേക്ക് പോവാനോ വരാനൊക്കെ സൗകര്യക്കുറവ് വാഹനങ്ങളുടെ കുറവുണ്ട് അതിനൊക്കെ ഇപ്പം ജനങ്ങള് ഇതുകൊണ്ട് തന്നെ പൊതു ഗതാഗതത്തെ ആശ്രയിക്കുന്നില്ല എന്നതാണ് യാ സത്യത്തിലുള്ള ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുകളും വളരെ കുറവാണ് കാരണം എല്ലാവരും സ്വന്തം വാഹനങ്ങളിലൊ ആയിരിക്കും പോകുന്നതും വരണതും ഒക്കെ ആദ്യമൊക്കെ ലൈൻ ബസ്സിന് അല്ലങ്കിൽ പൊതുഗതാഗതത്തെ ആശ്രയിച്ചാണ് ഇരുന്നുവെങ്കില് ഇന്നതല്ല എന്നുള്ളതാണ് യാഥാർഥ്യം